ഇപ്പോൾ ഈ മൊബൈൽ ഫോണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളിപ്പോൾ എന്തെങ്കിലും കയ്യിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റിങ്ങാണ് ഉള്ളത് ഹീറ്റിങ്ങില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സെറ്റായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എടക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ചിലപ്പോൾ എപ്പോൾ പൊട്ടിത്തെറിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ആണെങ്കിൽ കുറേ പൊട്ടിത്തെറിയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ വിവോൻ്റെ സെറ്റ് ആണെങ്കിലും റെഡ്മീൻ്റെ സെറ്റ് ആണെങ്കിലും ഏത് സെറ്റാണെങ്കിലും ഭയങ്കരമായിട്ട് ഹീറ്റിങ്ങും പൊട്ടിത്തെറിയും എല്ലാം കാരണം ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റില്ലാത്ത സെറ്റ് നോക്കി എടുക്കുക നല്ല ടൈപ്പ് നോക്കി ഫോണെടുക്കുക ഇതിന് വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഹീറ്റിങ്ങ് ഭയങ്കര കൂടുതലാണ് പിന്നെ ചാർജ് കയറുന്നതിനു ഭയങ്കര പ്രശ്നങ്ങളാണ് ചാർജ് ഭയങ്കര സ്ലോയാണ് ഇപ്പം മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ചാർജുണ്ടെന്ന് ചാർജർ ഉണ്ടെന്നു പറഞ്ഞിട്ടും കാര്യമില്ല ഒരു നാല് നാലഞ്ചു മണിക്കൂറൊക്കെ എടുക്കും ചാർജ് കയറണമെങ്കിൽത്തന്നെ അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എങ്ങനെയാണെന്നു വച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും എന്തൊക്കെയോ മിസ്റ്റേക്കുണ്ട് നമുക്ക് ഡിസ്പ്ലേയ്ക്ക് ചില സമയത്ത് ഒരു വര വീഴുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി വലിയ ഒരു സുഖം കിട്ടുന്നില്ല സിനിമ കാണാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമുക്കത് എന്തായാലും കാണാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഞാൻ ഒരു സുഖം ഇതിനു കിട്ടുന്നില്ല പിന്നെ ഇത്രയൊക്കെയുള്ളൂ പ്രശ്നങ്ങൾ